ഹലോ ആ ഹലോ അതെല്ലോ ആ സ്റ്റേ അതായത് സ്റ്റേ ഉണ്ട് പിന്നെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഇവിടത്തന്നെ റെഡി ആയിരിക്കും രണ്ട് ആഴ്ചത്തേയ്ക്കാണോ പെർ ഡേ ആണെങ്കിൽ ആയിരത്തി ഇരുനൂറ് രൂപ വരെ വരും ഒരു ദിവസത്തേക്കാണെങ്കിൽ രണ്ടാഴ്ച്ച നോൺ എ സിയും ഉണ്ട് എ സിയും ഉണ്ട് അതെ അതെ അതെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സിംഗിൾ ബെഡ്റൂമിന് ഒരു എണ്ണൂറ് രൂപയൊക്കെ വരും

ഇനിയിപ്പം രാവിലെ ആവുമ്പം നമുക്ക് ബുഫെ സിസ്റ്റം ആണ് അപ്പം ഇഡ്ഡ്ലി പൂരി ദോശ പുട്ട് ഇടിയപ്പം അങ്ങനെ എല്ലാം ഉണ്ടാവും മ് ഇഷ്ടം ഉള്ളത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടം ഉള്ളതുപോലെ കഴിക്കാം ഫ്രൂട്ട്സും ഉണ്ടാവും മ് ഉച്ചയ്ക്ക് പിന്നെ ബിരിയാണി ഉണ്ട് മന്തി ഉണ്ട് പിന്നെ ഊണ് ഉണ്ട് സദ്യ ഞങ്ങൾക്ക് ഇവിടെ പിന്നെ ഇവിടെ കൂടുതൽ ഏ ഓ കരിമീൻ ഫ്രൈ ആ അതെ അതെ അതെ ഫിഷ് ഐറ്റംസ് എല്ലാം ഫ്രൈ ചെയ്തത് ഉണ്ട് പിന്നെ കല്ലുമ്മക്കായ ഫ്രൈ ഉണ്ട് ആ പായസം ഉണ്ട് കേട്ടോ ആ മറ്റേ മുളയരി പായസാവും ഉണ്ട് പാലട പ്രഥമൻ രണ്ട് കൂട്ടം പായസം എന്നും അത് എല്ലാ ദിവസവും മാറി മാറി ഇരിക്കും ഓരോ ദിവസവും വേറെ വേറെ ആയിരിക്കും ഇവിടെ പിന്നെ മട്ടൻ ഉണ്ട് ചിക്കൻ ഉണ്ട് ബീഫ് ഉണ്ട് പ്രോൺസ് ഉണ്ട് പിന്നെ നോൺവെജും ഉണ്ട് അല്ല മാം നിങ്ങൾ രണ്ട് ദിവസം മുമ്പ് ഒന്ന് വിളിച്ചാൽ മതി ബുക്ക് ചെയ്യണം എന്നൊന്നും ഇല്ല ഞങ്ങളെ ഒന്ന് ജസ്റ്റ് വിളിച്ചാൽ മതി

ഇനി ഇപ്പോൾ അന്ന് വിളിക്കുന്ന ദിവസം പറയാം എത്രയാണ് അഡ്വാൻസ് ആയിട്ട് തരേണ്ടത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വരുന്ന ദിവസം തന്നാൽ മതി അല്ലേ വരുന്ന അന്നുതന്നെ തന്നാലും മതി ഓക്കെ ഓക്കെ ഈ നമ്പറിൽ വിളിച്ചാൽ മതി താങ്ക് യൂ